സാങ്കേതിക വിദ്യയിലെ പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ ഇപ്പോഴാണെങ്കിൽ സ്മാർട്ട്ഫോൺ ഉപയോഗിച്ച് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാം പണ്ടൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു കല്യാണത്തിനൊക്കെ ആണെങ്കിൽ ഒരു വീഡിയോ എടുത്താൽ അത് സി ഡി ആക്കണം അത് വീഡിയോ കാസറ്റ് അങ്ങനെ ഇപ്പോഴാണെങ്കിൽ നേരിട്ട് നമുക്ക് ഇത് മറ്റേ സി ഇൻറർനെറ്റ് വഴി കാണാം അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ഇപ്പം ഒരു ശവമടക്കിനാണെങ്കിൽ പോലും എപ്പോഴും ആ ഓൺലൈനിൽ നമുക്ക് എവിടെ ഏത് രാജ്യത്ത് എവിടെ ഇരുന്നാലും നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്മാർട്ട്ഫോൺ വഴി നമുക്ക് അത്യാവശ്യമുള്ള ഏത് കാര്യങ്ങൾ ചെയ്യാൻ ഓൺലൈൻ വഴി കാര്യങ്ങൾ നടത്താം സ്മ് ത് ഗൂഗിൾ പേ വഴി ക്യാഷ് കാര്യങ്ങൾ ബാങ്കിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നടത്താം അതുപോലെ തന്നെ സ്മാർട്ട്ഫോൺ ഉപയോഗിച്ച് ഒരുപാട് നമ്മുടെ ജീവിതങ്ങൾ ഇപ്പോൾ എത്രയും ലളിതമാക്കാം അതുപോലെ ഉള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പം ഒരു ഏതെങ്കിലും ഒരു രാ സ്ഥലത്ത് പോയി നമുക്ക് ഒന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഹോട്ടൽ ബുക്ക് ചെയ്യണം നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ബുക്ക് ചെയ്യാം അതുപോലെ തന്നെ സിനിമ കാണാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ടാണെങ്കിലും ഓൺലൈനിൽ നമുക്ക് ബുക്ക് ചെയ്യാം അതുപോലെ ബാങ്കിലെ ഏത് കാര്യങ്ങളാണെങ്കിലും നമുക്ക് സ്മാർട്ട്ഫോൺ വഴി ചെയ്യാം പിന്നെ അതുപോലെ എല്ലാ ആവശ്യത്തിന് നമുക്ക് സ്മ് സ്മാർട്ട്ഫോൺ ഉപയോഗിക്കാം കല് ത് ഒര് കാ കല്യാണത്തിൻ്റെ ആണെങ്കിൽ പോലും ഉടനെ നമുക്ക് അവിടെ നിന്ന് ലൈവ് ആയിട്ട് ഏത് രാജ്യത്ത് എവിടെ ഇരുന്നാലും നമുക്ക് ലൈവ് ആയിട്ട് കാണാം വി വീഡിയോ വീഡിയോ ഇത് ന്ന് എടുക്കാതെ വീഡിയോ കോൾ ചെയ്യാം ഏത് സ്ഥലത്ത് നിന്നാലും നമുക്ക് വീഡിയോ കോൾ ചെയ്യാം അതുപോലെ മ ഇപ്പം പ്രായമായവർക്കൊക്കെ ഒരു സ്ഥലത്ത് പോയാൽ അവർ മക്കളെ ഒന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ പോലും മക്കളെ ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ വീഡിയോ കോളിലൂടെ കാണാം എൻ്റെ മക്കളെ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണാറുണ്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ എന്ന് വേറൊരു വീട്ടിലാണെങ്കിൽ പോലും കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ കോൾ ചെയ്ത് കാണുവോ അങ്ങനെ അതുപോലെയുള്ള എല്ലാ കാര്യങ്ങൾക്ക് ഈ സ്മാർട്ട്ഫോൺ ആണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ ഒരു ഗുളികയെക്കുറിച്ചോ എന്തിനെ കുറിച്ചെങ്കിലും ഒന്ന് അറിയണമെങ്കിൽ ഉടനെ അത് ഗൂഗിളിൽ സർച്ച് ചെയ്ത് നമുക്ക് അതിൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എല്ലാം കാര്യങ്ങളതിന് എന്തൊക്കെയാണ് ഉള്ളെത് എന്നുള്ള വിവരങ്ങൾ കംപ്ലീറ്റ് നമുക്ക് അതറിയാൻ പറ്റുന്നുണ്ട് അതുപോലെ എല്ലാ ക അതുപോലെ ഓൺലൈൻ വാർത്തകൾ നമുക്ക് എവിടെയെല്ലാം നടക്കുന്ന വാർത്തകൾ ആണെങ്കിലും നമുക്ക് ഓൺലൈൻ വഴി കാണാൻ പറ്റും അതുപോലെ ഇപ്പം ടി വി വെച്ചുകൊണ്ട് ടി വിയുടെ ഫ്രണ്ടിൽ ഇരിക്കണമെന്നില്ല നമ്മൾ ഇപ്പം എന്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും നമുക്ക് ഈ ഫോണിൽ കൂടെ നമുക്ക് കാണാം അതുപോലെ മെസ്സേജ് ഒരാൾക്ക് മെസ്സേ ആൾക്കാർക്ക് ഇപ്പം എന്തെങ്കിലും പെട്ടെന്ന് ഒന്ന് അറിയിക്കണം എന്നുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കാം അതുപോലെ എല്ലാ കാര്യങ്ങളും ഇതുപോലെ ഈ സ്മാർട്ട്ഫോൺ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം അതുപോലെ ഓൺലൈനിൽ സാധനങ്ങൾ മേടിക്കാനാണെങ്കിലും പൈസ ഒന്നും ബാങ്കിൽ പോകാതെ പൈസ എടുക്കാതെ നമുക്ക് ഈ സ്മാർട്ട്ഫോൺ വഴി ഗൂഗിൾ പേ ചെയ്ത് ഏത് കാര്യങ്ങളും ചെയ്യാം അതും അതുപോലെ എല്ലാ കാര്യത്തിനും നമുക്കിപ്പം സ്മാർട്ട്ഫോൺ ഇല്ലാത്ത ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പം ലോകം വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഏത് കാര്യത്തിനും നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോയി താമസിക്കാൻ ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനും ഒക്കെ നമുക്ക് ഗൂഗിളിൽ സർച്ച് ചെയ്താൽ മതി ഏത് സ്ഥലത്തെ കുറിച്ച് അറിയാനാണെങ്കിലും അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഇതെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് ഗൂഗിളിൽ സർച്ച് ചെയ്ത് നമുക്ക് വിവരങ്ങൾ അറിയാം അതും അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ഇതും നമുക്ക് എളുപ്പം നമ്മുടെ ജീവിതം എളുപ്പമാക്കി തരുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്മാർട്ട്ഫോൺ വഴി നമുക്ക് സാധിക്കാവുന്നതാണ്